ആ ഓക്കേ പറഞ്ഞോളൂ മാം ആ ഓക്കേ ആ ഓക്കേ ആ പറഞ്ഞു തരാം കേട്ടോ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ രണ്ട് സ്ഥലങ്ങളൊഴികെ ബാക്കിയെല്ലായിടത്തും കടലുണ്ട് അതുകൊണ്ടുതന്നെ സീ ഫുഡ്ഡിന് ക്ഷാമം ഇല്ല ആ ഇപ്പം മീനൊക്കെയാണേൽ തന്നെ എല്ലാം ഫ്രഷാണ് പിന്നെ ലൈവായിട്ട് പിടിച്ച് ഉണ്ടാക്കി തരുന്നതുവരെ കാണിക്കുന്നുണ്ട് പിന്നെ ക്രാബ് അങ്ങനത്തെ ഐറ്റംസ് കരിമീൻ ക്രാബ് നത്തോലി അങ്ങനത്തെ ഓരോന്നുണ്ട് പിന്നെ ആലപ്പുഴയിലാണെങ്കിലിപ്പം റിസോർട്ടും കൂടെ നോക്കുന്നുണ്ടെങ്കിൽ കായലിന്റെ അടുത്തൊക്കെ വരുന്നതൊക്കെയാണെങ്കിൽ ആലപ്പുഴ നല്ലൊരു സ്പോട്ടാണ് അവിടെ അത്യാവശ്യം എന്താ പറയുക ഹൗസ് ബോട്ടിങ്ങൊക്കെ ഉള്ളതുകൊണ്ടുതന്നെ നമുക്ക് ഫിഷ് പിടിക്കുന്നത് അവർ കാണിച്ച് അങ്ങനെയൊക്കെ തരണുണ്ട്

ആ അത് ആലപ്പുഴ ബെസ്ററ് ഒപ്ഷനാണ് പിന്നെ കൊച്ചിയുണ്ട് കൊല്ലമുണ്ട് അത്പോലെത്തന്നെ കോഴിക്കോടൊക്കെയുണ്ട് ഇവിടെ നിന്നൊക്കെ ഫ്രഷ് മീനാണ് നമുക്ക് വേണേൽ പർച്ചേസ് ചെയ്യാം അതേപോലെത്തന്നെ എന്താ പറയുക കഴിക്കാനും അങ്ങനെയൊക്കെ പറ്റും ആ പിന്നെ ക്രാബിന്റെ മീനൊക്കെ ബിരിയാണി അങ്ങനെ ക്രാബ് ഫിഷ് ബിരിയാണി അങ്ങനെയൊക്കെ ആ പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അറേബ്യൻ ഫുഡ്ഡ് നോക്കുന്നുണ്ടോ ആ ഓക്കേ ഇപ്പം ഫിഷ് ആണേൽ ഗ്രില്ലുണ്ട് ഫ്രൈ അങ്ങനെയുണ്ട് റോസ്റ്റുണ്ട് കറിയുണ്ട് അങ്ങനെയൊക്കെ ആ തലക്കറി അങ്ങനെയൊക്കെ പറയാം ഇപ്പോൾ അതിന്റെ കോമ്പിനേഷനായിട്ട് കപ്പ അപ്പം പൊറോട്ട അങ്ങനെയൊക്കെ എന്താ പറയുക ഇതിന് കോമ്പിനേഷനായിട്ട് കൊടുക്കുന്നത് അതിപ്പോൾ നിങ്ങൾ പറയുന്നപോലെ തന്നെയാണ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡറ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ആ അപ്പോൾ നിങ്ങൾ എപ്പോഴാ വരുന്നത് ആ ഓക്കേ അപ്പം ആലപ്പുഴ നല്ല സ്പോട്ടാണ് ആ അപ്പം നിങ്ങൾ ഡീറ്റേയ്ൽസ് ഞാൻ വാട്സഅപ്പ് ചെയ്ത് തരാം എവിടേക്കാണുള്ളത് എന്തൊക്കെയാ ഫുഡ്ഡെന്നൊക്കെ ആ നല്ല ഫുഡ്ഡാണ് അപ്പോൾ വാട്സഅപ്പ് ചെയ്ത് തരാം നിങ്ങൾ ഏതാ നല്ലതെന്നു വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്തോളു ആ എന്നാൽ ഓക്കേ